ഇന്ത്യയിലെ ഗതാഗത സംവിധാനം ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുക തന്നെ സാധാരണക്കാർ കൂടുതലും ഉപയോഗിക്കുന്നത് റോഡ് വഴിയുള്ള ഗതാഗതമാണ് പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ എല്ലാം നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതലും ജലഗതാഗത മാണുപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന റെയിൽവേയും ഗതാഗതം ഉണ്ട് പിന്നെ ഒരുപാട് ദൂരം ആയത് വിദേശത്ത് ഒക്കെ വേ പോകണമെങ്കിൽ വിമാനമാർഗ്ഗം ഉപയോഗിക്കും ഒരുപാട് ചരക്കുകൾ കൊണ്ട് ദൂരദേശത്തേക്ക് പോകുകയാണെങ്കിൽ കപ്പൽ മാർഗ്ഗം ഉപയോഗിക്കും പിന്നെ യാത്രചെയ്യുന്ന സമയങ്ങൾ ധാരാളം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് റോഡുകളൊന്നും നല്ലതല്ല സർക്കാർ ൻ്റെ രീതിയിൽ വരികയാ നല്ല രീതിയിൽ ആയിരുന്നുവെങ്കിൽ കുറേ എല്ലാം മെച്ചപ്പെട്ട് പോകാനുള്ള ഒരു സംവിധാനം ആയേനെ